നമ്മുടെ കേരളത്തിലെ കലോൽസവം മെയിൻ കലോത്സവത്തിലെ കളികളാണ് മാർഗ്ഗംകളി തിരുവാതിര നാടോടിനൃത്തം മോഹിനിയാട്ടം പരിചമുട്ട് കോൽക്കളി ഒപ്പന കുച്ചുപ്പുടി ഭരതനാട്യം പിന്നെ അതുപോലെ തന്നെ ചെറുപ്പക്കാർ പണ്ടത്തെ കാലത്ത് സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്തിൽ നമ്മൾ തിരുവാതിരയ്ക്കും മറ്റുള്ള പരുപാടിക്കൊക്കെ പങ്കെടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ കോളേജിലൊക്കെ ഇന്നത്തെ കാലത്ത് ആണ്മക്കളും പിന്നേ കഥകളിയിൽ പങ്കെടുക്കാറുണ്ട് ഒത്തിരിയേറെ പല പല പരിപാടികളിലൂടെ ഒത്തിരി മക്കൾ ഈ ഇതിലൂടെ സമ്മാനങ്ങൾ വാങ്ങിക്കാറുണ്ട് പിന്നേ പഴയതുപോലെ അല്ല ഇന്നത്തെ കാലത്ത് ഒത്തിരിയേറെ അമ്പലങ്ങളിലായാലും പള്ളികളിലായാലും പല പരിപാടികളിലൂടെ ഒത്തിരിയേറെ മക്കൾ നമ്മുടെ വാർത്താ ചാനലിലൂടെ ഒത്തിരിയേറെ മക്കൾ ഇതിലൂടെ പങ്കെടുക്കുകയും വ്യത്യസ്തമായ നൃത്തരൂപങ്ങളുമായി സമ്മാനത്തിന് അർഹരാകാറുമുണ്ട് ഇതിലൂടെ ഇനിയും ഒത്തിരിയേറെ മക്കൾ വീണ്ടും വീണ്ടും നൃത്തരൂപങ്ങൾ പങ്കെടുക്കാൻ സാധിക്കട്ടേ എന്ന് പ്രാർത്ഥിക്കുന്നു